ഞങ്ങളുടെ വീടിന് ചുറ്റും അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നുമില്ല എന്നിരുന്നാൽ തന്നെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാവുന്ന ചെടികൾ അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാറുണ്ട് ഇപ്പം പച്ചമുളക് ആയിക്കോട്ടെ വീട്ടിൽ പച്ചമുളകുണ്ട് പിന്നെ റോസാപ്പൂ മുല്ലപ്പൂ അങ്ങനെ തുടങ്ങിയ കുറച്ച് പൂക്കൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പിന്നെ തക്കാളി വെണ്ടയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ഞങ്ങൾ ഇതുപോലെ തോട്ടത്തിലൊക്കെ പഴങ്ങൾ ഉണ്ടാകുന്നു പൂക്കൾ ഒക്കെ ഉണ്ടാകും പൂക്കളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അടുത്തുള്ള കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കും അവർക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ തലയിൽ വെച്ചിട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അടുത്തുള്ള കുഞ്ഞു കുട്ടികൾക്കാണ് കൊടുക്കാറുള്ളത് അതേസമയം പഴവർഗ്ഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറികളായിക്കോട്ടെ ഞങ്ങൾ ആവശ്യത്തിനുള്ളത് എടുക്കും പിന്നെ അധികമാകുന്നു അല്ലെങ്കിൽ ആ ചെടിയിൽ തന്നെ നിന്നത് നശിച്ചു പോകുന്നു എന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അത് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ ബന്ധുക്കാർക്കൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ കൊടുത്തു വിടാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തുവിടുന്നത് ഒരു സന്തോഷമാണ് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടമാണ് വീട്ടിലൊക്കെ വെണ്ടയ്ക്ക പിടിക്കുമ്പോഴൊക്കെയാണെങ്കിലും അമ്മ വീട്ടീന്നോ അച്ഛൻ വീട്ടിന്നോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരാൻ നേരത്ത് അവർക്കൊക്കെ ഒരുപാട് കൊടുത്തു വിടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ പച്ചക്കറിയോ പഴങ്ങളോ ഒക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാറുള്ളത്